ബാങ്കിങ്ങും ഇൻഷുറൻസൊക്കെ എല്ലാവർക്കും ഇപ്പോൾ എന്താ പറയുക യു പി ഐ അങ്ങനത്തെ ഒക്കെ ഡിജിറ്റലായിട്ട് മാറും നമ്മള് ബാങ്കെന്ന് പറയുന്ന സംഭവം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ ബാങ്കിങ്ങും കാര്യങ്ങളും ചെയ്യാം